വികസനത്തിൻ്റെ വളർച്ചയിൽ എറണാകുളം ജില്ല നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ അടിസ്ഥാന സൗകര്യങ്ങളുടെ ലഭ്യത കുറവാണ് ഇവിടെ ഏറ്റവും കൂടുതൽ ആളുകള് തിങ്ങിപ്പാർക്കുന്ന ഒരു സ്ഥലമാണ് ഈ എറണാകുളം ജില്ല എന്ന് പറയുന്നത് അവരുടെ ആവശ്യങ്ങള് പല സ്ഥലത്തിൽ നിന്നും വന്ന് താമസിക്കുന്ന ആളുകളുണ്ട് പല ഭാഷയിലുള്ള ആളുകളുണ്ട് മലയാളികളുണ്ട് തമിഴ് ഉണ്ട് ഹിന്ദിക്കാരുണ്ട് അങ്ങനെ പല രീതി ഭാഷയിലുള്ള ആളുകളും പല രാജ്യത്ത് നിന്ന് വന്ന ആളുകളുമൊക്കെ തിങ്ങിപ്പാർക്കുന്ന ഒരു സ്ഥലമാണ് ഈ എറണാകുളം കൊച്ചി എന്ന് പറയുന്ന സ്ഥലം അവിടെ താമസത്തിനുള്ള അടിസ്ഥാന സൗകര്യങ്ങള് പല രോ ഹിന്ദിക്കാരക്കെയാണെങ്കിലും ഒരു മുറിയിൽ ആറ് എട്ട് പത്ത് പേര് പന്ത്രണ്ട് പേര് അങ്ങനെ ഒക്കെയാണ് താമസിക്കുന്നത് അങ്ങനെ ആൾക്കാർക്ക് ജീവിക്കാനുള്ള ജീവിത സാഹചര്യങ്ങൾക്കുള്ള അടിസ്ഥാന സൗകര്യങ്ങളുടെ ലഭ്യത കുറവൊക്കെയാണ് നമ്മുടെ ഈ എറണാകുളം ജില്ല നേരിടുന്ന ഏറ്റവും വലിയ പ്രധാന വെല്ലുവിളി അതേപോലെ തന്നെ നമ്മുടെ സാമൂഹികപരമായിട്ടും കൂടുതലായിട്ട്

അടിസ്ഥാന സൗകര്യങ്ങളും ഇവിടെ കുറവുണ്ട് നമ്മുടെ ഈവനായിട്ടുള്ള ഒര് ബസ് സ്റ്റോപ്പ് പോലും സാദാ നമുക്ക് കയറി നിൽക്കുവാന് വേണ്ടിയിട്ട് നല്ല രീതിയിലുള്ള ബെസ്റ്റോപ്പിപ്പോലും പല സ്ഥലങ്ങളിൾ നമ്മള് കാണാറില്ല അതേപോലെ ഹോസ്പിറ്റലുകളിലാണങ്കിലും അവടെ ആളുകൾ ഇടിച്ചു തിങ്ങി നിൽക്കും അവിടെ ആവശ്യത്തിനുള്ള സ്റ്റാഫുകൾ ഉണ്ടാവില്ല ഡോക്ടർമാരുണ്ടാവില്ല നേഴ്സുമാആർ ഉണ്ടാകില്ല പല ഗെവൺമെൻട് ഹോസ്പിറ്റലുകളിലുമാണ് ഇങ്ങനത്തെയുള്ള അവസ്ഥ ഭയങ്കര തിരക്കുള്ള നമ്മുടെ എറണാകുളം ജെനറൽ ആശുപത്രിയിലൊക്കെ ആണെൽ എപ്പോളും ഭയങ്കര തിരക്കാണവിടെ രാവിലെ നല്ല ഓ മണിക്കൂറുകൾ എടുത്താണ് ഓരോ രോഗികളും ഡോക്ടറെ കാണുന്നത് അങ്ങനെ അടിസ്ഥാന സൗകര്യങ്ങളുടെ ഒര് ലഭ്യതക്കുറവാണ് എറണാകുളം ജില്ല നേരിടുന്ന ഏറ്റവും കൂടുതൽ വെല്ലുവിളി പിന്നേന്ന് പറഞ്ഞ് കഴിഞ്ഞാല് മഴക്കാലമൊക്കെ ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ വെള്ളം കയറുന്ന പ്രദേശങ്ങളിലെ ആളുകളുടെ ബുദ്ധിമുട്ട്കള് അവർക്ക് വേണ്ട അടിസ്ഥാന സൗകര്യങ്ങള് വീട് വെച്ചു കൊടുക്കുന്ന മാർഗ്ഗങ്ങള് അങ്ങനയുള്ള പല വിധത്തിലുള്ള സാമൂഹിക വെല്ലുവിളികള് നേരിടുന്ന ഒരു സ്ഥലമാണ് എറണാകുളം ജില്ല എന്ന് പറയുന്നത്